ആ പറഞ്ഞോളൂ സാർ ആ പോകാമല്ലോ സാർ എപ്പോഴാണ് ആ ഫ്രീയാണ് ഫ്രീയാണ് ആ ആ കൈനഗരി പ്രോപ്പറെവിടാണ് സ്ഥലം കറക്റ്റ് സ്ഥലം പറയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം സാർ ആ കുട്ടമംഗലം മുട്ട മുട്ടപ്പാലത്തിൻറ്റൊക്കെ അടുത്താണോ ആ ഉണ്ടുണ്ട് പാലം കയറി ഇറങ്ങണം

ആ ഓക്കെ ആ ഓക്കെ ഓ അവിടൊരു ഗുരുമന്ദിരൊക്കെയുണ്ടല്ലേ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓ ആ ഞാനൊരു ഞാനിപ്പം ആലപ്പുഴ ടൗൺലാണ് ഒരു മുപ്പത് മിനിറ്റ് അര മണിക്കൂറുള്ളിലെത്താൻ സാർ ആ ഓ ആ ഓക്കെ ആ ഓക്കെ പോയിട്ട് തിരിച്ച് നമുക്ക് നമ്മൾ സാധാരണ റേറ്റ് മേടിക്കുന്നത് മുന്നൂറാണ് സാറിന് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് തരാം

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ വേറെവിടെങ്കിലും പോകണോ സാറിന്

ആ നമുക്ക് ടൗണി പോകണമായിരിക്കുമല്ലേ ആ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പം നമ്മൾ വെയ്റ്റിംഗ് ചാർജെടുക്കായിരിക്കും കേട്ടോ

ആ ആശുപത്രി ആശുപത്രി എന്താ ഇതിലിപ്പോൾ എന്തേലും അത്യാവശ്യമുണ്ടോ അതോ എന്തേലും കാര്യമുണ്ടോ ഇപ്പം ഞാൻ കൂടെ നിൽക്കേണ്ട നിൽക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ആ അവിടെ ഇപ്പം ആ വണ്ടാനത്തിപ്പോൾ തിരക്കൊക്കെ ആയിരിക്കുമല്ലേ അത് ആ ആ ഓക്കെ ഇല്ലില്ല ഇപ്പോൾ എനിക്കോട്ടൊന്നും ഇല്ല അപ്പം നമ്മൾ സമയം അത്രയും അത്രയും വെയ്റ്റിംഗ് ചാർജ് കൂടുന്നുള്ള പ്രശ്നം മാത്രമേയുള്ളു ആ വെയ്റ്റിംഗ് ചാർജ് നമ്മളെ സമയത്തിന് അനുസരിച്ചാണ് നമ്മളൊരു മണിക്കൂറിന് അൻപത് രൂപ വെച്ചാണ് പിടിക്കുന്നത് ആ അതെ അതെ അതെ ആ ഇരുന്നൂറ്റൻപതാണ് പറഞ്ഞത് അൻപത് രൂപ വെച്ച് കൂടും ആ അതെ എക്സ്ട്രാ എക്സ്ട്രാ വരും എക്സ്ട്രാ വരും ആ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്ക് ഓടുന്ന പോലെ അങ്ങ് പറയാൻ ആ ഓക്കെ ആ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ സമയം പതി പന്ത്രണ്ട് പതിനൊന്നാവുന്നു ആ ഒരു പതിനൊന്ന് നാൽപ്പതൊക്കെ ആകുമ്പം മാക്സിമം പതിനൊന്ന് നാൽപ്പതാവുമ്പോൾ എത്തിയേക്കാം ആ സാറിൻ്റെ പേരെന്തായിരുന്നു സാറിൻ്റെ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഒന്നൂടെ ഒന്നൂടെ പറയാമോ ആ മുണ്ടക്കയം പാലം കയറി കഴിഞ്ഞിട്ട് ഓ സോറി സോറി ആ ഓക്കെ ഓക്കെ ആ

ആ ഓക്കെ ആ ആ റോഡ് അറിയാം അറിയാം അറിയാം ആ ഗുരുമന്ദിരവുമുണ്ട് ആ ഓക്കെ അവിടെ വരുമ്പം ഞാൻ വിളിക്കാം ഈ നമ്പറി വിളിച്ചാൽ മതി അല്ലല്ലിപ്പം ഞാൻ ടൗൺൽ ഒരു ഒരു ഒരു പാർട്ടീടെ സാധനമൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കാണ് അവരിപ്പോൾ പോവും അത് കഴിയുമ്പം ഞാൻ ഇറങ്ങും എന്തായാലുമൊരു പതിനൊന്ന് നാൽപ്പത് ആകുമ്പം ഇല്ലില്ല ഇല്ലില്ല ഞാനങ്ങനെ ചെയ്യാറില്ല സംസാരിക്കാറില്ല അല്ലെ പിന്നെ ഹെഡ് ഫോൺ വെച്ചാ സംസാരിക്കാറുള്ളൂ ആ ഓക്കെ ഓക്കെ ഞാനൊരു മുപ്പത് മിനിറ്റ് മാക്സിമം നാൽപ്പത് മിനിറ്റ് ഓക്കെ സാർ ഓക്കെ സാർ